ഹലോ മലബാർ ഹോട്ടൽ അല്ലെ കുറച്ച് മുൻപ് ഒരു ഓർഡർ നൽകിയിരുന്നു ഒരു സാന്റ്വിച്ച് ബർഗറ് രണ്ട് ആപ്പിൾ ഷേക്ക് എന്നിവയാണ് ഓർഡർ ചെയ്തത് പേയ്മെന്റ് അപ്പോൾത്തന്നെ നടത്തിയിരുന്നു പക്ഷെ ജോലി സംബന്ധമായിട്ട് ഒന്ന് എറണാകുളം വരെ പോകേണ്ടി വന്നു അപ്പോൾ ഞാൻ സ്ഥലത്തില്ല വീട്ടിൽ നിന്നിറങ്ങി അപ്പോൾ ഈ ഓർഡർ ഒന്ന് ക്യാൻസൽ ചെയ്യണമായിരുന്നു ഓർഡർ ക്യാൻസൽ ചെയ്ത് റീഫണ്ട് ചെയ്യണം എന്നു പറയാൻ വേണ്ടി വിളിച്ചതാണ്